ചെടികളും മരങ്ങളും നമ്മളെ തോട്ടത്തിൽ പുഷ്പിച്ചു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ചെടി ചെടികൾ നമ്മൾ നടുമ്പോൾ ഓരോ ചെടികളിലും ഓരോ പുഷ്പം ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടക്കം തൊട്ടേ ഒരു മൊട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് വിരിയുന്നത് ഓരോ ദിവസവും എന്നാൽ ഓരോ മണിക്കൂറിലും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഒരു പൂവിനെ ശ്രദ്ധിക്കുന്ന ആൾക്ക് അത് ശരിക്ക് മനസ്സിലാകുന്നതാണ് എന്നു വച്ചാൽ പൂവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അത് ഒരാൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ചില പുഷ്പങ്ങൾ വീട്ടിൽ പൂർണ്ണമായും വിരിഞ്ഞു കഴിയുമ്പം എന്നാണെന്നു വച്ചാൽ വിരിഞ്ഞു വരുമ്പോൾത്തന്നെ നല്ല മണമായിരിക്കും ആ വീട് മൊത്തം നല്ല മണമായിരിക്കും പിന്നാ ചെടി ഓരോ ചെടികളിലും ഓരോ പുഷ്പങ്ങൾക്കും പല വർണ്ണങ്ങളാണ് പല നിറത്തിലുള്ളതാണ് ഒരേ നിറത്തിലുള്ള പുഷ്പ്പങ്ങൾ പല ഡിസൈനുള്ള പുഷ്പങ്ങൾ അതൊക്കെ കാണാൻ അതിനു പുഷ്പത്തോട് അത്രയും താല്പര്യമുള്ളവർക്കാണ് അതിനെ ആസ്വദിക്കാനും കഴിയുള്ളൂ ഓരോ ദിവസം വിരിയുന്ന പൂക്കളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ പൂവിൻ്റെ ചലനം ആ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒരു മരമായാലും ഒരു മരത്തിൻ്റെ വളർച്ച നമ്മൾ ദിവസം പോയി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലായില്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷം നമ്മൾ ആ ആ മരത്തിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ച അന്നേരമാണ് മനസ്സിലാവുക ദിവസവും പോയി നോക്കിയാൽ നമുക്കൊരു മരത്തിൻ്റെയോ ഒരു ചെടിയുടെയോ വളർച്ച നമുക്ക് മനസ്സിലാവില്ല